ഞാൻ പാലക്കാട്ടിലേക്ക് പോകാൻ വേണ്ടി ഒരു ക്യാബ് ഡ്രൈവറോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇന്ന് കോട്ടായിൽ നിന്ന് പുറപ്പെടാൻ പറ്റില്ല പകരം ഞങ്ങൾ എന്നെ പിക്കപ്പ് ചെയ്യാനായിട്ട് പറയിലേക്കാണ് വരേണ്ടത് ആ അതുകൊണ്ട് കുറച്ചു നേരത്തെ ഇറങ്ങിയാൽ മാത്രമേ എനിക്ക് ട്രെയിൻ പിടിക്കാൻ പറ്റുകയുള്ളൂ നിങ്ങൾക്ക് വരാൻ പറ്റില്ല എങ്കിൽ വേറെ ഒരു ഡ്രൈവറെയോ വേറെ ഒരു വണ്ടിയോ ഏർപ്പെടുത്തി തന്നാൽ എനിക്ക് വളരെ ഉപകാരമായി ഞാൻ എനിക്ക് പെട്ടെന്ന് പോകേണ്ടി വന്ന കാരണത്താലാണ് ഞാൻ കോട്ടായിൽ നിൽക്കാം എന്നു പറഞ്ഞു എങ്കിലും എനിക്ക് ഒരു അത്യാവശ്യ കാരണം ഉള്ളതുകൊണ്ട് പർലയിലേക്ക് പോവേണ്ടി വന്നു അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങോട്ട് വരാൻ വഴി അറിയില്ല എങ്കിൽ ഞാൻ ലൊക്കേഷൻ പറഞ്ഞു തരാം അതനുസരിച്ചിട്ട് നിങ്ങൾ വന്നാൽ മതി ഞാൻ വിളിക്കുമ്പോൾ തന്നെ അങ്ങോട്ട് വരുകയും വേണം കുറച്ച് നേരത്തെ ഇറങ്ങിയാൽ മാത്രമേ എനിക്ക് സമയത്തിന് എത്താൻ പറ്റുകയുള്ളൂ